ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ട്ടപ്പെടുന്ന ഒരു എഴുത്തുകാരൻ ഒരു എന്നു പറയുന്നത് ബെന്യാമിൻ എന്നുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹൃദയ സ്പർശിയായ ഒരു നോവലാണ് ആടുജീവിതം ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾ മറികടക്കുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യത്ത് ഗൾഫ് ഗൾഫിലെ ഒരു ഒരു ആടിനെ മേയ്ക്കുന്ന ജോലിയിലേക്ക് പോയപ്പോഴത്തേക്ക് ഉണ്ടായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അവസാനം അതൊരു പുസ്തകമായി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി അദ്ദേഹത്തിന് നേരിൽ ഈ ആടുജീവിതം എന്നുള്ള പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ബെന്യാമിൻ വരച്ചു കാണി ച്ചിട്ടുണ്ട് ഒരു ദുരിത പൂർണമായ ഒരു ജീവിതം ആ ദുരിത പൂർണമായ ജീവിതത്തിൻ്റെ ചെറിയതും വലിയതുമായ എല്ലാവിധ അനുഭവങ്ങളും നല്ല രീതിയിൽ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകത്തക്ക രീതിയിലേക്ക് ആ പുസ്തത്തിലൂടെ വരച്ചു കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ആടുജീവിതത്തെ കുറിച്ച് ഒപ്പം തന്നെ ഈ ആടുജീവിതത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം ഒരു സിനിമയാക്കി മാറ്റിയ ഒരു സംഭവം അല്ല ഒരു സിനിമയുണ്ടായിരുന്നു ആടുജീവിതം എന്നു പറയുന്നതു പോലെയാകാം പൃഥിരാജ് മലയാളത്തിലെ മുൻനിര നായകൻമാരിലൊരാളായ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യൻ ആ അതായത് പുസ്തകത്തിലെ കഥാനായകൻ അനുഭവിച്ച യാതനകളും വേദനകളും ആടുജീവിതത്തിൻ്റെ സിനിമയിലൂടെ തന്നെ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി അഭിനയിച്ച് കാണിക്കുന്നത് ഉണ്ടായി അത് ഒരു നല്ല ആ ഒരു പുസ്തകമായിരുന്നു ആ പുസ്തകത്തിനെ ഉണ്ടായ കഥാപാത്രങ്ങൾ അവരുടെ ജീവിതങ്ങൾ ആ ജീവിതങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള അനുഭവങ്ങൾ അതെല്ലാം ഒരു നല്ല രീതിയിലേക്കുള്ള ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ബെന്യാമിനെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടാണ് ഉള്ളത് എന്നുള്ളതാണ് അതേപോലെ തന്നെ നിരവധി പുസ്തകങ്ങളും ഉണ്ട് നമ്മുടെ ആ അഗ്നിച്ചിറകുകൾ നമ്മളുടെ നമ്മുടെ ഡോക്ടർ എ പി ജെ എ പി ജെ അബ്ദുൾ കലാം നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇറക്കിയ ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പഠനം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലങ്ങൾ അദ്ദേഹം എങ്ങനെയായിരുന്നു വളർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ പഠനം ഉയർന്ന വിദ്യാഭ്യാസം ആദ്യ കാലങ്ങളിൽ ചെയ്ത ജോലികൾ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ജോലി കിട്ടിയ സമയം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെയുള്ള നിരവധിയായ കാര്യങ്ങൾ അന്ന് അവസാനം രാഷ്ട്രപതിയാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളുള്ളതെ ഉള്ള നമുക്ക് വ്യക്തമായ അറിയാവുന്ന കാര്യങ്ങളാണ് അത് ഞാൻ അഗ്നിചിറകുകൾ വായിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എന്നെ ഈ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ തന്നെയാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നിരവധി പുസ്തകങ്ങളുണ്ടെങ്കിൽ തന്നെയാണേലും ഞാൻ ഇപ്പോൾ രണ്ട് പുസ്തകങ്ങളെ കുറിച്ചാണ് എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്